ആ ഹലോ സർ ആ ഞാൻ ഓപ്പോൻ്റെ കമ്പനീന്നാണെ വിളിക്കുന്നത് ആ സാറെ ഞങ്ങളുടെ പുതിയൊരു ഫോണ് ലോഞ്ചായിട്ടുണ്ട് അതിൻ്റെ പേര് ഓപ്പോ എ ഫിഫ്റ്റി എസ് ആ അതെ സർ ആ അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെന്താ പറയുക പിന്നെ ഇതിൻ്റെ ബോക്സിൽ തന്നെ നമ്മുടെ ഗൊറില്ല ഗ്ലാസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഗ്ലാസ് കവറ് പിന്നെ പൗച്ച് തന്നെ നമുക്ക് നിങ്ങൾക്കിഷ്ടമുള്ളത് കടയിൽനിന്ന് ഇന്റെയൊപ്പം ഫ്രീയാണ് പിന്നേ ഫോണിൻ്റെ ബേക്കപ്പെന്ന് പറഞ്ഞാൽ അയ്യായിരം എച്ച് ബാറ്ററിയുണ്ട് പിന്നെ നാല് ജി ബി റാമുണ്ട് പിന്നത്യാവശ്യം ക്യാമറയെല്ലാം പക്കാ ക്വാളിറ്റിയാണ് അത് നമുക്ക് ഷോപ്പിൽനിന്ന് തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ഇതിനിയിപ്പം ഇന്നലെയിപ്പം കേരളത്തിൽ ലോഞ്ചായിട്ടേയുള്ളൂ പിന്നെയിപ്പം കുറച്ചങ്ങോട്ട് നമ്മുടെ കേരളത്തിൽ വയനാട്ടിലും കാര്യങ്ങളൊക്കെ എത്താനുണ്ട് അപ്പോൾ സർ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് സാറിന് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ വിളിക്കണം ഞങ്ങളെ നമ്പറ് താഴെ കൊടുത്തേക്കാം കേട്ടോ ഓക്കേ സർ താങ്ക് യൂ